ഹായ് ഡാ ജിനോ എനിക്ക് നിന്നെക്കൊണ്ടൊരു സഹായം വേണമായിരുന്നു ഞാനൊരു സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനു ഞാൻ ഇപ്പോൾ നാട്ടിൽ ഇല്ല ഞാനിപ്പോൾ ബാംഗ്ലുരാണ് അതാണ് എനിക്കിപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റുകളൊന്നും അവിടെ സമർപ്പിക്കാൻ പറ്റത്തില്ലല്ലോ നീയ്യെ മുൻപ് ഈ ഡിജി ലോക്കറിനകത്ത് സർട്ടിഫിക്കറ്റ് മുൻപ് നീ എടുത്ത് ആർക്കാണ്ട് കൊടുത്തില്ലായിരുന്നോ എടാ അതേപോലത്തെ ഞാൻ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്നു നീ എനിക്കൊന്നു പറഞ്ഞു തരണം നാളെ ഒരു ദിവസം കൂടെയുള്ളു അപ്പോൾ അതിനോടകത്ത് അവിടെ എനിക്കിവിടെ വന്ന് എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തു ചെയ്യുക ഡിജി ലോക്കർ വഴി എടുക്കുക എന്നതിന് എന്തൊക്കെ സംഭവങ്ങളാണ് വേണ്ടിയൊന്നു പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്ന ഓൺലൈനിൽ ചെയ്യാമായിരുന്നു അപ്പോൾ അതിന് നിൻ്റെ ഒരു സഹായം വേണം ഞാൻ അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നീ എനിക്കൊന്നു പറഞ്ഞു തരണം